വയനാട് ജില്ലയിൽന്നല്ല കേരളത്തിൽ മൊത്തത്തിൽ തന്നെ കുറെ ഉത്സവങ്ങളൊക്കെ കൊണ്ടാടാ കൊണ്ടാടാറുണ്ട് അതായത് വിഷു ഓണം ഈദുൽഫിത്തറ് ക്രിസ്മസ് ഇതൊക്കെ ഏകദേശം ഇന്ത്യയിൽ തന്നെ ഏകദേശം എല്ലാരും ആഘോഷിക്കാറുള്ളത്തന്നെയാണ് വയനാട് ജില്ലയിൽന്ന് പറഞ്ഞ് കഴിഞ്ഞാല് പ്രധാനമായിട്ടും ഉത്സവങ്ങളാണ് അതായത് ഇപ്പം മാനന്തവാടിന്ന് പറഞ്ഞ സ്ഥലത്ത് വെല്ലൂർകാവ് ഉത്സവം അതായത് വായനാട്ടുകാർടെ മെയിൽ ഉത്സവമാണ് വെള്ളൂർക്കാവ് ഉത്സവംന്ന് പറഞ്ഞുകഴിഞ്ഞാല് അവിടെ മെയിനായിട്ട് എന്ത്പറയാ അവിടുത്തെ ഓരോ ആചാരങ്ങളൊക്കെയുണ്ട് അതായത് ആദിവാസികളാണ് അവിടെ കൂടുതലും എന്ത് പറയുക ഈ ഇതില് ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത് അവിടെ എല്ലാർക്കും പോവാം അതായത് അന്യമതക്കാരാണെങ്കിലും ആരാണെങ്കിലും അവിടെ പോവാം പിന്നെ ഓണത്തിനെന്നു പറഞ്ഞാ നമ്മടെ സാധാരണ പോലെ പൂക്കളം ഇടുന്നു ഓണത്തപ്പനെ വരവേൽക്കുന്നു പിന്നെ ഓണസദ്യ കഴിക്കുന്നു പിന്നെ ഓണക്കളികളുണ്ട് വടംവലി പിന്നെ ബിസ്കറ്റ് കടി അങ്ങനെ ഓരോ കളികളൊക്കെ നമ്മള് നമ്മള് എന്ത് ചെയ്യുക നമ്മള് ഓരോ സെൻറ്ററുകളിലായിട്ട് നടത്തുന്നിണ്ട് അതിന് നമ്മള് സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് അതേപോലെയാണ് ക്രിസ്മസും ക്രിസ്ത്മസിന് നമ്മള് എങ്ങനെയാന്ന് വെച്ചാല് കേക്ക് മുറിക്കും ഉണ്ണിയേശുനേ കാണാൻ വേണ്ടിയിട്ട് രാത്രി അവര് എന്താപറയാ ക്രിസ്മസ് പാപ്പ ഒക്കെ വന്ന് ഉണ്ണ് യേശുവിനെ കാണിച്ച് തന്നു നമ്മൾ എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുത്ത് കഴിഞ്ഞ ആവരങ് പോവും അത് കരോൾന്ന് പറയും അയിന് അതേപോലെയുള്ള ആചാരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ദീപാവലി നടത്തുന്നുണ്ട് ദീപാവലീന്ന് പറഞ്ഞാല് നമ്മള് ദീപങ്ങള് കത്തിച്ച് വെച്ചിട്ട് നമ്മളെന്തേയ്യാ ദീപംന്ന് പറഞ്ഞ് കഴിഞ്ഞാ തന്നെ നമുക്ക് എന്താപറയാ നമ്മുടെ അഗ്നിദേവൻ ആണ് അഗ്നിദേവനെ കത്തിച്ച് വെച്ച് എന്താപറയാ ദീപാവലി കൊണ്ടാടുന്നുണ്ട് അതിന് ആ സമയത്ത് തന്നെ പടക്കോം പൊട്ടിക്കും നമ്മളിങ്ങനെ ആ ദിവസത്തേക്ക് പടക്കം പൊട്ടിക്കും വിഷുനും അതേപോലെത്തന്നെ കണി കാണുക അതായത് കൃഷ്ണൻ്റെ വിഗ്രഹം കണി കാണല് നമ്മള് രാവിലെ ഒരു നാല് മണിയാകുമ്പോ എണീറ്റിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയി നമ്മള് കണ്ണടച്ച് പോയിട്ട്നിന്നിട്ട് കണികാണുന്നതിനെയാണ് ഈ വിഷു വിഷുക്കണി എന്നൊക്കെ പറയും അപ്പം വിഷുവിന് കൈനീട്ടം കിട്ടും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യാറുണ്ട്